ആ നല്ലൊരു കാലാവസ്ഥയും സന്ദർഭവും നോക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഏപ്രിൽ മാസമാണ് ഏറ്റവും നല്ല ഒരു സഞ്ചാരികള്ക്ക് വരാന് പറ്റിയ ഒരു സമയം പരിപാടികൾ ഉള്ളത് ഞങ്ങളുടെ ഇവിടെ ഏപ്രിൽ മാസത്തിലാണ് തൃശ്ശൂർ പൂരം ഉള്ളത് പൂരങ്ങളുടെ ഒരു സീസന് തന്നെയാണ് ആ സമയത്ത് ഉണ്ടാവുക ഈ ഏപ്രില് ഈ മാര്ച്ച് സീസണില് ഉണ്ടാവുക പിന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള പാവറട്ടി പെരുന്നാള് അതും ഈ മെയ് മാ ഏപ്രില് മാസം അവസാനമാണ് ഉണ്ടാവുക അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എത്ര പത്ത് മുപ്പത് ലക്ഷം ആൾക്കാരായിരിക്കും അന്ന് തൃശ്ശൂര് പൂരത്തിന്റെ അന്ന് അവിടെ ഉണ്ടാവുക

ഒരു കേരളത്തില് മൊത്തായിട്ടുള്ള ഒരു വലിയ ഒരു ഉത്സവം വലിയ ഒരു ഫെസ്റ്റിവല് എന്നായിട്ടാണ് തൃശ്ശൂര് പൂരത്തിനെ കണക്കാക്കുന്നത് അത് കാണുന്നൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തൃശ്ശൂര് പൂരം അതിനുവേണ്ടിട്ട് ഫോറിനിൽ നിന്നും കുറെ ടൂറിസ്റ്റുകള് ഓള്റെഡി വരാറുണ്ട് പിന്നെ അന്നൊക്കത്തെ കുറച്ച് സ്ഥലേ ഉള്ളൂ പക്ഷെ അത്രയധികം ആള്ക്കാര് തിക്കി തിരക്കുണ്ട് ജാം വരുവായിരിക്കും കാരണം അത് അതാണ് തൃശ്ശൂര് പൂരം ഈ ആനകളുടെ കുടമാറ്റം അതൊക്കെ കാണാന് തന്നെയാണ് ഈ ആള്ക്കാര് കണ്ടമാനം വരുന്നത് ഈ സമയങ്ങളില് നിങ്ങള് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നാൽ ഒരിക്കലും നഷ്ടമാവുകയില്ല കാരണം അതത്രയും നല്ല ഒരു ബ്യൂട്ടിഫുള് ടൈമാണ് തൃശ്ശൂര് പൂരത്തിന്റെ ഈ ഏപ്രില് മാസവും മാര്ച്ച് മാസവും പിന്നെ പാവറട്ടി പെരുന്നാള് അപ്പം ഈ പള്ളിപ്പെരുന്നാളുകളിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് ഞങ്ങളുടെ പാവറട്ടി പള്ളിപ്പെരുന്നാള് അവടെ അതും തൃശ്ശൂര് പൂരം ഏകദേശം സെയിമ് ഒരേ സമയത്താണ് വരിക അപ്പോൾ പാവറട്ടി പള്ളി പെരുന്നാള് കഴിഞ്ഞിട്ടാവും തൃശ്ശൂര് പൂരം വരിക അപ്പോൾ ശനിയാഴ്ച പാവറട്ടി പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാറാഴ്ച തൃശ്ശൂര് പൂരം അപ്പം ഇങ്ങനെയാകുമ്പോൾ ശനിയാഴ്ച പാവറട്ടി പെരുന്നാള് കണ്ടിട്ട് ഞാറാഴ്ച തൃശ്ശൂര് പൂരത്തിന് പോകും ഇങ്ങനെയാണ് ഇവിടത്തെ തൃശ്ശൂര്കാര് ഒക്കെ ചെയ്യാറ് ഇതാണ് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ സമയവും സന്ദര്ഭം ഈ സ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാന് ഞങ്ങളുടെ ടൂറിസ്റ്റ് സ്ഥലങ്ങള് ഒക്കുമേ കാണാനും പറ്റിയ അനുയോജ്യമായ സമയവും സ്ഥലവും സന്ദര്ഭവും